ഇപ്പം കോഴിക്കോട് ജില്ലയില് കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ചില സർക്കാര് പരിപാടികള് എന്തൊക്കെയാ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ജില്ലയില് പലതരം പരിപാടികൾക്കിപ്പം ആസൂത്രണം ചെയ്തിട്ട് നടപ്പിലാക്കിയവരാണ് ഇപ്പം പലതരം സർക്കാരിൻ്റെ പരിപാടികളും അപ്പം അത് കൂടുതലായിട്ടും കോഴിക്കോട് ജില്ലയില് നല്ല രീതിയില് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കോഴിക്കോടിൻ്റെ വികസനത്തെ തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പരിപാടികള് കൊണ്ടും എല്ലാ കാര്യങ്ങള് കൊണ്ടും നമുക്ക് വളർന്ന് വളർത്തി എടുക്കാൻ വേണ്ടി സാധി സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണെങ്കിലും പലതരം പരിപാടികള് കാര്യങ്ങളൊക്കെ സർക്കാര് ൻ്റെ പദ്ധതി കൊണ്ട് നടത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ടൂർണമെൻറ്റ് ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള ടൂർണമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതലായിട്ടും ബീച്ച്കളിലാണ് കേന്ദ്രീകരിച്ച് നടത്താറുള്ളത് അപ്പം അതൊക്കെ നടത്തും തോറും ഇപ്പം യുവാക്കളിൽ നിന്നുള്ള നല്ല രീതിയിലുള്ള അതായത് യുവാക്കളിൽ നിന്ന് നല്ലരീതിയില് പാർട്ടിയിലേക്കും ഇപ്പം നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് അവരെ നല്ല രീതിയില് സ്വാധിനിച്ച സ്വാധീനിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കരുതൽ പദ്ധതി അങ്ങനെ ഓരോ ഓരോ പദ്ധതികള് പിന്നെ പ്രത്യാശ പദ്ധതി വായുരക്ഷാ പദ്ധതി അങ്ങനെ എന്താ പറയുക ഇപ്പം അങ്ങനത്തെ പലതരം പദ്ധതികള് കാര്യങ്ങളൊക്കെ നമ്മളുടെ സർക്കാര് ഇപ്പം ചെയ്യുന്നുണ്ട്